നമ്മുടെ പ്രദേശത്ത് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്ന് പറഞ്ഞു വെച്ചാൽ നെല്ല് അരിയായി ഒരു ബ്രാൻഡ് ഇപ്പോൾ അരിയെ ഒരു ബ്രാൻഡ് ആക്കി നമുക്ക് റൈസ് എല്ലാവിടേക്കും എത്തിക്കാൻ പറ്റും അതുതന്നെയാണ് കാരണം നമ്മുടെ ഞങ്ങളുടെ സ്ഥലത്ത് കൂടുതലൊക്കെയുള്ളത് കൃഷിയാണ് കൃഷി പറഞ്ഞാൽ നെൽ കൃഷിയാണ് അപ്പോൾ നെൽകൃഷി വെച്ചിട്ടുള്ള ബിസിനസും അങ്ങനത്തെയുള്ള വർഗ്ഗ ഇത് മാത്രം നമുക്ക് പ്രകൃതി ആയിട്ടുകിട്ടുകയുളളൂ വേറെ ഒന്നും അങ്ങനെ ഇല്ല പിന്നെ റബ്ബർ റബ്ബർ അധികം ഒന്നും ഇവിടെയില്ല നെൽകൃഷിയാണ് കൂടുതൽ അപ്പോൾ നെൽകൃഷി നമുക്ക് അതിൽ നിന്ന് അതിൽ നിന്ന് കൊണ്ടുള്ള ബിസിനസ് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ